ചിത്രം വരയ്ക്കുന്നതെനിക്ക് വളരെ ഇഷ്ടമാണ് ചിത്രം വരയ്ക്കുന്നതിനാൽ പലർക്കും പല കഴിവുകളുമുണ്ട് എനിക്ക് ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചതും എനിക്കിതിനെല്ലാം പറഞ്ഞ് തന്നതും എൻ്റെ സ്വന്തം മാഷാണ് മാഷിൻ്റെ പേര് രാജേഷെന്നാണ് മാഷിന് പത്തു നാൽപ്പത് വയസ്സോളമുണ്ട് മാഷ് നമ്മളെ വിദ്യാർത്ഥികളെ എല്ലാറ്റിനും വേണ്ടിയും സഹായിക്കാറുണ്ട് മാഷ് പലപ്പോഴും എല്ലാവർക്കുമൊരു സഹായിയാണ് ചിത്രം വരയ്ക്കുന്നതിന് ഞങ്ങൾ ഓൺലൈൻ കോഴ്സുകളൊന്നും തിരഞ്ഞെടുത്തിട്ടില്ല ഞങ്ങൾ ചിത്രം ഇതിന് വേണ്ടിയൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടിയാരാണോ പരിശ്രമം തരുന്നതെന്നു ചോദിച്ചാൽ ഞങ്ങളുടെ മാഷിനെ മാത്രമേ ചൂണ്ടികാണിക്കാറുള്ളൂ ഞങ്ങൾ അടുത്തിടെ വരച്ചൊരു ചിത്രം അതിന് പിന്നിലൊരുപാട് കഥകളുണ്ട് കാരണം നമ്മൾ പോയ ഒരു സ്ഥലത്തെക്കുറിച്ച് ആയിരുന്നു അതു മറക്കാൻ പറ്റില്ലാത്തൊരോർമ്മയായിരുന്നു അവിടെ കൊണ്ടു പോയതും ഈ മാഷ് തന്നെയാണ് ഈ മാഷ് തന്നെയാണ് നമ്മളെ വരയ്ക്കാൻ പഠിപ്പിച്ചതും അത്രയേയുള്ളൂ